ഹലോ ബി ഇ എം ഹയർ സെക്കൻഡറി സ്കൂൾ കാസർഗോഡ് ആ ഗുഡ് ഈവനിംഗ് പറഞ്ഞോളൂ ആര് ഓക്കെ ഏത് ഏതാണ് ഇത് ഏതാണ് ഇയറ് എൽ കെ ജി ആണോ എൽ കെ ജിയിലേക്ക് അല്ലേ ഓക്കെ നിങ്ങളെ അഡ്മിഷൻ അഡ്മിഷൻ ഫണ്ടിൻ്റെയും ഇത് കാര്യങ്ങളൊക്കെ അറിയാമോ

ഓക്കെ അത് ഫീസ് ഫീ ഫീസ് വരുന്നത് ആനുവലി ഫിഫ്റ്റി തൗസൻഡ് ആണ് പിന്നെ ഡോണേഷനായി വൺ ലാക്ക് തരേണ്ടി വരും ആ ഫിഫ്റ്റി തൗസൻഡ് പെർ ആനുവൽ ആ

എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അത് സ്വിമ്മിംഗ് ഉണ്ട് പിന്നെ സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട് സ്വിമ്മിംഗിന് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഈ ഫീസ് കൂടും ആ സ്വിമ്മിംഗ് പിന്നെ സ്കേറ്റിംഗ് അതുപോലുള്ള ഇത് ഉണ്ട് പിന്നെ ഫുട്ബോൾ കോച്ചിംഗ് ഉണ്ട് ആ സ്പോർട്സിലേക്ക് സ്പോർട്സിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ട് പോവാറുണ്ട് കഴിഞ്ഞ ആ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നാഷണൽ ടീമിൽ നമ്മുടെ കോളേജ് ചാമ്പ്യൻ ഉണ്ടായിരുന്നു സ്കൂൾ ചാമ്പ്യൻ ഉണ്ടായിരുന്നു യാ മാർഷൽ ആർട്സ് നിലവിലില്ല പക്ഷെ വരുന്നുണ്ട് ഇപ്പോൾ ഈ വർഷം ഇല്ല എന്തായാലും ആ കൊണ്ട് വരാൻ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള ടീച്ചറെ കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ട് ആ ഒരു വൺ ടു റ്റു ഇയർ അതിന് ഉള്ളിൽ വരും

ആ എന്തായാലും നിങ്ങളെ മെയിലിലേക്ക് ഞാൻ അയക്കാം നിങ്ങൾ മെയിൽ ഒന്ന് പറഞ്ഞോളൂ മെയിലിലേക്ക് ഡീറ്റെയിൽസ് അയക്കാം ആ ആ മതി മതി മതി മതി ഓക്കെ ശരി